എൻ്റെ സെക്കൻറ് പ്രോഡക്റ്റ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഓയിലാണ് അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര താരനും മുടി കൊഴിച്ചിലുമാണ് അപ്പം ഭയങ്കര മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു അതായത് ഒരു കട്ടക്കൊക്കെയായിരുന്നു എനിക്ക് മുടിയെല്ലാം കൊഴിഞ്ഞു പോകാറ് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെയായി ഇങ്ങനെ മുടിയെന്താ കൊഴിയുന്നതെന്നൊക്കെ ചിന്തിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒരു ഹെയർ ഓയിലുണ്ട് പിന്നെ നല്ല ഹെയർ ഓയിലാണ് അത്യാവശ്യം നല്ല ഹെയർ ഓയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഹെയർ ഓയിൽ മേടിച്ചു യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം യൂസ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നിനക്ക് മുടി കൊഴിച്ചിൽ നിൽക്കും താരനൊന്നും ഉണ്ടാകില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത് പക്ഷെ ഞാൻ രണ്ട് ദിവസം തേച്ചപ്പത്തേക്ക് തന്നെ എനിക്ക് മുടി കൊഴിച്ചിൽ ഇപ്പം എനിക്ക് ഒരു കെട്ടാണ് പോകുന്നതെങ്കല്ല് ഇപ്പോൾ രണ്ട് കെട്ട് പോകുന്ന രീതിയിൽ അത്രക്കും അത്രക്ക് തിക്കായിട്ട് എൻ്റെ മുടി കൊഴിയാൻ തുടങ്ങി പിന്നെയെന്ന് വെച്ചാൽ താരൻ്റെ കട്ടയായി തുടങ്ങി അങ്ങനെ താരൻ വരൻ തുടങ്ങി അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ഭയങ്കര ഒരു വിഷമമായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് നൂറ് മില്ലിക്ക് അങ്ങനെ മേടിച്ചു കൊണ്ടുവന്നതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള ഒരിതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിക്കില്ലായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഫാൾട്ട് ആയിട്ടാണ് തോന്നിയത് അത് ഈ പ്രോഡക്റ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും നല്ല പ്രോഡക്റ്റ് അല്ല എനിക്ക് ഇതിൽ നെഗറ്റീവ് അഭിപ അഭിപ്രായം മാത്രമേ എനിക്ക് ഇതിനെ കുറിച്ചുള്ളൂ